ഞാൻ പറഞ്ഞതു പോലെ തന്നെ യാത്രയിലെ യാത്രയെ ഏറ്റോം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ യാത്രയെ പോലെ തന്നെ ഭക്ഷണങ്ങളും ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടവാണ് യാത്രകൾ പല യാത്രകൾ പോയിട്ടുണ്ടെങ്കിൽ പോലും യാത്രകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരാഹാരമായിരുന്നു ഷാപ്പിലെ തലക്കറി അതിൻ്റെ രുചി ഇപ്പോഴും നാവിൽ നാവിൽ നിൽക്കയാണ് സൊ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ആഹാരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞത് തലക്കറിയും ചീനിയും കൂടെയാണ് പണ്ടെ ഞാനൊരു ചീനി ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഷാപ്പിലെ തലക്കറീം കൂടി ആയപ്പോൾ രണ്ടും നല്ല കിടു കോമ്പിനേഷനായിരുന്നു പിന്നീട് എന്താണ് യാത്രകളെപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ആഹാരോം എന്ന് പറഞ്ഞു ആഹാരങ്ങൾ ആസ്വദിച്ചു ഓരോ ആഹാരവും ആഹാരവും ആസ്വദിച്ചു കഴിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് കൂടുന്നത്